ഞങ്ങളുടെ ഈ പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ കായിക പരിശീലനത്തിനുള്ള ഒരു കേന്ദ്രങ്ങളും ഇല്ല എന്നു തന്നെ പറയാം ഈ വർഷാവർഷം സ്കൂളുകളിൽ നടക്കുന്ന സ്പോർട്സ് ഡേയിൽ നടക്കുന്ന സ്പോർട്സ് മീറ്റുകളല്ലാതെ ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കായിക പരിശീലനത്തിനുള്ള ഒരു ഇടങ്ങളോ സൗകര്യങ്ങളോ ഇല്ല പിന്നെ ഈ എന്താ പറയുക നമ്മുടെ പഞ്ചായത്തു മേളകൾ നടക്കുമ്പോൾ നടക്കുന്ന മത്സരങ്ങൾ അത് അതും വല്ലപ്പോഴും വ വർഷാവർഷം നടക്കുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും സ്പോട്സിനെ സ്നേഹിക്കുന്നവർക്ക് സ്പോർട്സ് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കോച്ചിംഗ് സെൻ്ററുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഒരുവിധത്തിലുള്ള പരിശീലന കേന്ദ്രങ്ങളും ഇല്ല ഞങ്ങളുടെ തൊട്ടടുത്ത് പറയുകയാണെങ്കിൽ കാട്ടാക്കട തിരുവനന്തപുരം ഇങ്ങനെയുള്ള നെയ്യാറ്റിൻകര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പരിശീലന കേന്ദ്രങ്ങളും സൗകര്യങ്ങളും ഉണ്ട് അവിടെയൊക്കെ പോയി പഠിക്കാൻ ഞങ്ങൾക്ക് പലർക്കും ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് കാരണം പോയി വരിക എന്നുള്ളതും പിന്നെ സമയത്തിൻ്റെ പ്രശ്നം എല്ലാം കൊണ്ടും വളരെയേറെ പ്രശ്നങ്ങളാണ് ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ചിതു മലയോര ആ ഒരു മേഖലയായതു കൊണ്ടു തന്നെ അത്ലറ്റിക്സിലും സ്വിമ്മിങിലും ഒക്കെ കഴിവു തെളിയിച്ച ഇഷ്ടം പോ അധികം ഒത്തിരി അധികം പ്രതിഭകളുണ്ട് എങ്കിൽ പോലും അവർക്കു തന്നെ പലർക്കും അവരുടേതായ ശരിയായിട്ടുള്ള കോച്ചിംഗ് കിട്ടിയിരുന്നെങ്കിൽ അവരെല്ലാം നല്ല നിലയിൽ തന്നെ ഒരു പക്ഷേ ചെന്നെത്തുമായിരുന്നു മാത്രമല്ല സ്വിമ്മിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആർക്കും സ്റ്റൈൽ അറിയില്ല സിമ്മിംഗ് സ്റ്റൈൽ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം കാരണം അവർ ഫ്രീ സ്റ്റൈലാണെങ്കിൽ കുറേയേറെ ടൈമിങ്ങോടു കൂടി അല്ലെങ്കിൽ കുറേയേറെ കുറച്ചധികം സമയം മറ്റുള്ളവരെ കാട്ടിലും കൂടുതൽ നീന്തി സ്റ്റാമിന ഉണ്ട് തെളിയിക്കുന്നുണ്ടെന്നുള്ള അല്ലാതെ അവർക്ക് അതിൻ്റെ ഒരു വിധമായ സ്റ്റൈലുകളും അറിയില്ല അതു കൊണ്ടു തന്നെ സിമ്മിംഗിൽ എപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പരാജയം തന്നെയാണ് അതു പോലെ ഫുട് ബോളായാലും ക്രിക്കറ്റ് ആയാലും മറ്റ് അത്ലറ്റിക്സിൽ ആയാലും അത്ലറ്റിക്സിൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷേ അവർക്കൊന്നും അവരുടേതായ രീതിയിൽ ശരിയായ രീതിയിലുള്ള ഒരു പരിശീലനം കിട്ടുന്നില്ല കിട്ടുന്നില്ല കാരണം അവർക്കൊക്കെ ഇവിടെയുള്ള പല കുട്ടികൾക്കും നല്ല സ്റ്റാമിന ഉണ്ട് സ്റ്റാമിന ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായ രീതിയിൽ അത് അവരുടെ കേപ്പബിലിറ്റിയിൽ തി കേപ്പബിലിറ്റി തെളിയിക്കാനുള്ള അവസരം കിട്ടുന്നില്ല അവസരം കിട്ടിയാൽ തന്നെ അവർ പലപ്പോഴും പരാജയപ്പെട്ടു പോകാനുള്ള കാരണം അതിനുള്ള ശരിയായ പരിശീലനം കിട്ടുന്നില്ല എന്നുള്ളതു തന്നെയാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഞങ്ങളുടെ ഈ നാട്ട് മലയോരദേശത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്പോർട്സ് അക്കാഡമി എന്തെങ്കിലും തുടങ്ങിയാണെങ്കിൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കു നാളെ നാളേക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടായി ആകും പിന്നെ ഈ സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിലിവിടെ എന്താ പറയുക നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്പോർട്സ് ടീച്ചേഴ്സ് ഫിസിക്കൽ എജു എജുക്കേഷൻ ടീച്ചേഴ്സൊക്കെ ഒരു ഒരു പക്ഷേ ഒരു നല്ലൊരു ഫിസിക്കൽ എജുക്കേഷൻ ടീച്ചർ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെയൊക്കെ സ്കൂളുകളിലുള്ള കുട്ടികളെ എങ്കിലും വാർത്തെടുക്കാൻ കഴിയുമായിരുന്നു കാരണം അവർ വർഷാവർഷം സ്കൂൾ നടത്തുന്ന സ്പോർട്സ് ഡേയ്ക്കു നടത്തുന്ന മത്സരങ്ങളല്ലാതെ അതിലുപരി അല്പം കഴിവുള്ള പിള്ളേരെ അതിലേക്കു തെളിയിച്ചു കൊണ്ടു വരണം അവരെ അതിലേക്കു നയിക്കണം എന്നുള്ള ഒരു എന്താ പറയുക മാനസികാവസ്ഥ അവർക്കും ഇല്ല പിന്നെ സമയം കിട്ടാതെ സമയക്കുറവ് കൊണ്ടും പണ ചിലവുകൾ കൊണ്ടും കുട്ടികൾക്കും അതിനുള്ള മാനസികാവസ്ഥ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം